എൻ്റെ ഗ്രാമത്തിലെ വിനോദ സഞ്ചാരികൾക്ക് ഹോം സ്റ്റേ സൗകര്യങ്ങളുള്ള പല സ്ഥലങ്ങളുമുണ്ട് മെയ്നായിട്ട് ഇവിടെ വരുന്ന വിനോദ സഞ്ചാരികൾക്ക് ഇവിടെ കാണാനായിട്ട് കൂടുതലായിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടങ്ങള് കുന്നുകള് കുന്നുംപുറങ്ങള് അങ്ങനെ ചെറിയ ചെറിയ നടന്ന് ചെന്ന് കയറി ഒരു ഒരു ഒരു വ്യൂ കിട്ടുന്ന പോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുമുള്ളത് അപ്പോള് രാവിലത്തെ സൂര്യാസ്തമയവും വൈകിട്ടത്തെ അല്ല രാവിലത്തെ സൂര്യോദയവും വൈകിട്ടത്തെ സൂര്യാസ്തമയവും കാണാന് പറ്റുന്ന പോലത്തെ അതിന് സൗകര്യം ഒടുക്കുന്ന പോലാണ് ഇവിടത്തെ വിനോദ സഞ്ചാര മേഖല പൊതുവെ പ്രവർത്തിക്കുന്നത് ഇവിടെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് കൂടുതല് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങള് വ വാഹന സൗകര്യങ്ങളെക്കെ കൂടുതലായിട്ട് ഒരുക്കിയിട്ടുണ്ട് യാത്രാ സൗകര്യങ്ങള് കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ മെയ്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യമെന്നു പറഞ്ഞാല് ഹോം സ്റ്റേകളാണ് ഹോം സ്റ്റേകളെന്ന് പറഞ്ഞാല് ഒരു വീട് ഒരു അവർക്ക് ആവശ്യ യാത് വിനോദ സഞ്ചാരികളുടെ ആവശ്യ പ്രകാരം ഉള്ള പലരെ പല മേഖലകളിലുള്ള വീടുകള് ഞങ്ങളിവിടെ അറേയ്ഞ്ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീട് ഹോംലി വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങളും കിട്ടുന്ന പോലെ ഞങ്ങള് അങ്ങനത്തെയൊരു സംവിധാനമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് വീടുകളോട് ചേർന്ന് തന്നെ ഒരുങ്കില് ഒന്നുങ്കില് അതിനോട് ചേർന്ന് തന്നെ ഒരു റൂം പോലെ അല്ലെങ്കില് കുറച്ചു നീങ്ങിയിട്ട് ഒരു ഒരു മുറി ഒരു ഹാള് കിച്ചണ് അടുക്കള പിന്നെ ബാത്ത് റൂം സൗകര്യങ്ങള് അങ്ങനെയാണ് ഞങ്ങള് അറേയ്ഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മിക്ക വീടുകളും അങ്ങനെയാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു അവരുടെ അവർ അവരുടെ ഒരു വ്യക്തിപരമായ ഇതുകൂടെ ഞങ്ങള് മാനിച്ച് അവർക്കൊരു പ്രത്യേക ഒരു സ്പേസ് ഒരു പ്രത്യേക ഒരു സ്ഥലം ഞങ്ങള് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു സ്വകാര്യത ഞങ്ങള് മാനിച്ച് പിന്നെ കുക്ക് ബക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതൊക്കെയാണ് ഞങ്ങള് വച്ചിരിക്കുന്നത് ഇപ്പോള് ആവശ്യത്തിന് വേണ്ട അരിയും മറ്റ് സാധനങ്ങളും ഒക്കെ ഞങ്ങളാ അടുക്കളയില് വെക്കാറുണ്ട് പിന്നെ ആൾക്കാര്ക്ക് ഇപ്പോള് നമ്മള് കുക്കെയ്ത് കൊടുക്കുന്നെയാണ് താൽപ്പര്യം അങ്ങനെ അവര് പറയുവാണെങ്കില് ഞങ്ങള് വീട്ടില് തന്നെ ഉണ്ടാക്കുന്ന ചോറ് കറികള് പിന്നെ അത്യാവശ്യം മീൻ കറി പിന്നെ അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഫുഡുകളും ഞങ്ങളവർക്ക് പ്രിപ്പേറെയ്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ മെയ്നായിട്ടും ഞങ്ങള് ഇവിടുത്തെ വ്യൂ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിന്നെ അപ്പോള് മെയ്നായിട്ടും വൈകിട്ടൊക്കെ ഈ ഞങ്ങളുടെ അവിടെ കുറച്ച് കാട് പോലത്തെ സ്ഥലങ്ങളുണ്ട് വന മേഖലയാണ് അപ്പോള് വന മേഖല പോലത്തെ സലങ്ങളിലൊക്കെ ഞങ്ങള് വൈകിട്ട് അവരെയും കൊണ്ട് പോകും ഞങ്ങളും കൂടെ കാണും കാരണം ഞങ്ങള്ക്കാണല്ലോ ഈ സ്ഥലം കുറച്ചുകൂടെ പരിചയമുള്ളത് അപ്പോള് അങ്ങനെയൊരു പരിചയമുള്ള ഒരാളുടെ കൂടെ ഈ സ്ഥലങ്ങളിലേക്ക് പോയി അവിടുത്തെ ഈ ചില ചില ചെടികള് പിന്നെ പുല്ലുകളൊക്കെ ചില നല്ല രസമുള്ള പുല്ലുകളൊക്കെയുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങള് ആൾ അവരിലേക്ക് പരിചയപ്പെടുത്തും പിന്നെ ചെറിയ പ്രാണികള് നക്ഷത്രങ്ങൾ വണ്ടുകള് പിന്നെ നക്ഷത്ര പ നക്ഷത്രം പോലിരിക്കിന്ന ഈ ചെടികളെക്കൊയുണ്ട് അപ്പോള് അങ്ങനത്തെ ഞങ്ങളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവർക്കിങ്ങനെ പരിചയപ്പെടുത്തിക്കൊടുക്കും പിന്നെ ഒരു ലാസ്റ്റ് ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ എത്തി അങ്ങനെ ഞങ്ങള് നടന്നുകയറി അവിടെ ചെന്ന് ഒരു കുറച്ച് നേരം അവർക്കവിടെ ഇരിക്കാന് പറ്റുന്ന പോലത്തെ ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്തു കൊണ്ടുവരും പിന്നെ അവർക്ക് വേണ്ടി നമ്മള് അവിടെത്തന്നെ ഭക്ഷണങ്ങള് അവിടെ പുറത്തിരുന്ന് കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കും അല്ലാതെ അവർക്ക് റൂമിലാണു വേണ്ടതെന്ന് ഉണ്ടെങ്കില് മുറികളിലും ഭക്ഷണം ഒരുക്കിക്കൊടുക്കും പിന്നെ ഹൊ അല്ലാതെ നമ്മളിപ്പോള് സാധാ ഇതൊരു ഒരു വീടിൻ്റെ ഒരു പ്രതീതി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതല്ലാതെയും ഹോട്ടൽ സൗകര്യങ്ങളും ഉണ്ട് ധർമ്മശാലകള് പൊതുവെ ഞങ്ങളുടെ നാട്ടില് കുറവാണ് കാരണം എല്ലാവരും ഒരു ഒരു വരുമാന മാർഗം അതിൽ നിന്ന് കണ്ടെത്താനാണ് കൂടുതലായിട്ടും ശ്രമിക്കുന്നത് അപ്പോള് സൗജന്യമായിട്ട് ആൾക്കാരിലേക്ക് ഒന്നും അങ്ങനെ സൗജന്യമായി എത്തുന്നത് ഈ വ്യൂ മാത്രമാണ് അപ്പോള് ധർമ്മ ശാലകള് ഞങ്ങളുടെ നാട്ടില് പൊതുവെ കുറവാണ് പിന്നെ ഹോട്ടലുകളുണ്ട് ഹോട്ടലുകളില് പല നിരക്കിലുള്ള ഹോട്ടലുകളുണ്ട് പഞ്ച നക്ഷത്ര ഹോട്ടലുകളുണ്ട് സാധാരണ ഹോട്ടലുകളുണ്ട് അപ്പോള് അതിൻ്റെ റേ റേയ്റ്റനുസരിച്ച് ആൾക്കാരുടെ അവരെങ്ങ ഏത് ഇതാണ് ഇപ്പോള് അവര് കൂടുതലും തെരഞ്ഞെടുക്കുന്നത് ഏത് ലെവലിലാണ് ഈ പൈസ കൂടുതല് ചെലവാക്കാൻ താൽപര്യമുള്ളവർക്കും ഉള്ള സ സൗകര്യങ്ങളുണ്ട് അല്ലാ ഏറ്റവും മിനിമത്തില് വി ഏറ്റവും കുറച്ച് നന്നായി കുറച്ച് ചെലവില് നല്ലൊരൂ അനുഭവമാണ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ഞങ്ങളിവിടെ ഒരുക്കുന്നുണ്ട്